ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സംസ്കാരം പാരമ്പര്യ രീതികളെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ ഇന്ത്യയില് ഒരു പാരമ്പര്യ രീതി എന്ന് പറയുന്നത് നമ്മള് കൂടുതലും എന്തോന്നാ ഫാമിലിസായിട്ട് ഒരുമിച്ച് അണുകുടുംബം എന്ന് പറയില്ലെ ഇപ്പം ഫാമിലിസായിട്ട് ഇപ്പ മറ്റ് സംസ്കാ സംസ്കാരങ്ങളിൽ നോക്കുവാണെങ്കി ഇപ്പോ അങ്ങനെ ഫാമിലിസായിട്ട് ആരും താമസിക്കാറില്ല എല്ലാരും ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കി സ്വന്തം കാര്യം നോക്കി അങ്ങനത്തെ പോകുന്നാണ് പക്ഷേ നമുക്കങ്ങനത്തെ പാരമ്പര്യവില്ല നമ്മള് അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും റിലേറ്റീവ്സൊക്കെ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ താമസിക്കുക അങ്ങനെയൊക്കെയുള്ള സംസ്കാര രീതികളാണ് പക്ഷേ പിന്നെ എന്തോന്നാണ് ഇവിടെ നമുക്ക് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ലിവിങ് ടുഗതർ അങ്ങനത്തെ റിലേഷനൊന്നും ഇവിടെ അങ്ങനെ കാണാനൊള് കാ അധികം അങ്ങനെ കാണാറില്ല പക്ഷേ മറ്റുള്ള സംസ്കാരങ്ങള് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ഇതെക്കെ കാണാറുണ്ട് പിന്നെ അതുപോലെ വിശ്വാസമാണെങ്കിൽ ഇവിടെയാണെങ്കിൽ മതങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് മതം പിന്നെ റിലീജിയൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാരും ഓരോ മതത്തിലല്ലേ ഓരോ റിലീജിയൺ റിലീജിയണിൽ ഉള്ളവരായിരിക്കും മറ്റ് സംസ്കാരങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ മതം അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ അവരുടെ ഇത് മതം അങ്ങനത്തേത് ഇല്ല അത് കാണാനുള്ള അത് തന്നെയാണ് മറ്റ് സംസ്കാരങ്ങളും ഇന്ത്യയും തമ്മിലുള്ള അവരെ വ്യത്യസ്തരാക്കുന്നത്